ചേട്ടാ ഞാൻ ഇന്നലെ നിങ്ങളെ ക്യാബൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് എല്ലാം പറഞ്ഞു ശരിയാക്കിയതായിരുന്നു പക്ഷേ കാര്യമെന്താണെന്നു വച്ചാൽ ഞാനാ ക്യാബ് വിളിച്ചിട്ടാണ് ആ ക്യാബ് വന്നിട്ടാണ് ഞാൻ അതിൽ കയറിയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയത് പോയപ്പോൾ നിങ്ങൾ പറഞ്ഞ നിങ്ങളെ ചാർട്ട് പ്രകാരം ഉള്ള ഒരു ഫീസായിരുന്നില്ല ഡ്രൈവർ മേടിച്ചത് ഡ്രൈവർ എന്നോട് അതിനേക്കാളും കൂടുതൽ ചോദിക്കുകയുണ്ടായി നിങ്ങൾ ചാർജജ് പറഞ്ഞപ്പോൾ മുന്നൂറാണ് കിലോമീറ്ററിന് ഇരുപത് രൂപയാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കിലോമീറ്ററിന് ഇരുപതെന്നു വച്ചാൽ അവിടേക്ക് ഒരു മുപ്പത്തഞ്ചു കിലോ മീറ്റർ നാല്പത് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് അതിനാള് പറഞ്ഞത് രണ്ടിരട്ടി പൈസയാണ് അതെങ്ങനെ ശരിയാവുക നിങ്ങളല്ലേ ഒരു ഇത്ര ചാർജ്ജെന്ന് പറഞ്ഞത് ഉറച്ചു നിൽക്കേണ്ടത് അതിൽ അതു നിങ്ങളെ ഇതിലുള്ളതല്ലേ ചാർട്ടിലുള്ള പൈസയല്ലേ നിങ്ങൾ പറഞ്ഞത് അതിന് എങ്ങനെയാണ് നിങ്ങളെക്കാളും കൂടുതൽ ചാർജജ് അവർക്ക് മേടിക്കാൻ പറ്റുക ഡ്രൈവർക്ക് വളരെ മോശം അനുഭവമാണ് എനിക്കന്നുണ്ടായത്